പാചകം ചെയ്യുമ്പോൾ ഞങ്ങൾ എടുക്കുന്ന മുൻകരുതൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വെക്കുന്ന കറികൾ നല്ല രീതിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്യുക തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ഉണ്ടോന്ന് നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്തിരിക്കണം ഗ്യാസ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ ആണെങ്കിൽ ഇൻഡക്ഷൻ കുക്കറില് ഇപ്പോൾ കറണ്ട് കാര്യങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ വെറുതേ ഇത് എല്ലാം ഉണ്ടാക്കി വെയ്ക്കുന്നതിനു മുൻപെ നമ്മൾ ഇപ്പോൾ കറികൾക്കുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചതിനുശേഷം മാത്രമാണ് നമ്മൾ ഇപ്പം ഗ്യാസ് ഉണ്ടോന്നൊക്കേ നോക്കുന്നതെങ്കിൽ നമ്മൾ അത്രയും അരിഞ്ഞതും എല്ലാം വേസ്റ്റ് ആയിപ്പോകും അപ്പോൾ ഗ്യാസ് ബുക്ക് ചെയ്യണമെങ്കിൽ ഇന്ന് ബുക്ക് ചെയ്തുകഴിഞ്ഞാൽ ഇപ്പം ചില സ്ഥലങ്ങളിൽ ചൊവ്വാഴ്ച ചില സ്ഥലങ്ങളിൽ ബുധനാഴ്ച അങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഒക്കെ ആയിരിക്കും വരിക അപ്പോൾ തലേദിവസമെ ബുക്ക് ചെയ്താലാണ് പിറ്റേ ദിവസം വരുകയുള്ളൂ ഒരു ദിവസം മുൻപെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആകെ പ്രശ്നങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത് നാശമായി പോകാനും കാര്യങ്ങളൊക്കേ സാധ്യതയാണ് പിന്നേ കറണ്ട് ഉള്ള ടൈമിലൊക്കേ ആണെങ്കിൽ നമുക്ക് അത് പാചകം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ മെയിൻ ആയിട്ട് മുൻകരുതൽ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്യാസ് അങ്ങനത്തെ സാധനങ്ങൾ ആദ്യം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ